ഞങ്ങൾ മീൻ പിടിക്കുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിരയില്ലേ മണ്ണിരേനെ ഇടും നമ്മുടെ ഇതിൽ നമ്മൾ കോർക്കുന്ന ഇതിൽ വല നമ്മൾ ഇതിടാ ചെയ്യുക അത് വലയല്ല ഇത് എന്താ പറയുക മീൻ പിടിക്കിന്ന ചൂണ്ടയിൽ മണ്ണിര കോർത്തിടുക അല്ലെങ്കിൽ നമ്മൾ പിന്നെ ചോറ് മൈദ ഗോതമ്പ് പൊടി പിന്നെ കോഴിക്ക് കൊടുക്കുന്ന മുട്ട തീറ്റ ചോള പൊടി ഒക്കെക്കൂടിയൊന്ന് കുറുക്കും കുറിക്കിയിട്ട് ഉരുണ്ട് ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് അത് പിന്നെ എന്ത് ചെയ്യും അത് ചൂണ്ടയിൽ ഇടും എന്നിട്ട് ചൂണ്ടയിൽ ഇട്ടിട്ട് നമ്മൾ പിന്നെ ദുരോട്ട് ഇതാക്കുമ്പം കൊത്തും മീൻ കൊത്തി ഇങ്ങനെ അതിങ്ങനെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇട്ടിട്ട് ഒരു പിന്നെ കോൽ കുത്തിയിട്ട് അതിൽ ഇങ്ങനെ കെട്ടി വെയ്ക്കണം ചൂണ്ട അപ്പം പിന്നെ വലിക്കും വലിക്കുമ്പം നമുക്കറിയാം മീൻ കൊത്തിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ മെത്തേഡ് ആണ് ഈ പിന്നെ കൊട്ടയില്ലേ കൊട്ട പിന്നെ കൊട്ടയിങ്ങനെ ഇറക്കി വെച്ചാൽ ഒരു ഭാഗം തുറന്ന് വെച്ചാൽ മീൻ കയറി ഇരിക്കുമെന്ന് പണ്ടുള്ള ഒരു മെത്തേഡ് ആണ് ഓരോരുത്തരും ഓരോ മെത്തേടെടുക്കും ഞങ്ങളങ്ങനെയെക്കെയാണ് മീൻ പിടിക്കാറ്